ഹലോ അതെ അതെ അതെ നമുക്ക് പലച്ചരക്കായിട്ടുള്ളത് അരി അരി വര്ഗ്ഗങ്ങളുണ്ട് പിന്നെ അരീ പുഞ്ചെ പുഞ്ചയരിയുണ്ട് പാലക്കാടന് മട്ടയുണ്ട് പിന്നെ ജയ അരിയുണ്ട് മിക്കവാറും എല്ലാ ഐറ്റം ഉണ്ട് അരി വര്ഗ്ഗങ്ങൾ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അരി പൊടീ അരിപ്പൊടിയായിട്ട് പായ്ക്കറ്റ് ആ പായ്ക്കറ്റ് വരുന്ന സാധനങ്ങളുണ്ട് ആ ആ അരിപ്പൊടിയൊക്കെ ഉണ്ട് അരിപ്പൊടി ഗോതമ്പ് പൊടി പയറ് ബള്ക്ക് ബള്ക്ക് ബാഗിൽ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പായ്ക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പായ്ക്കറ്റാക്കിയും കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആ ഹാ എന്നാക്കെ വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ആ ഹാ ഹാ ഹാ ഹാ ഓ ഓ ഇല്ല നമുക്ക് ഓട്ര് കിട്ടി അതിന്റെ പേയ്മെൻറ്റായി കഴിഞ്ഞാൽ നമ്മൾ പിറ്റേദിവസം തന്നെ കൊടുത്ത് വിടാൻ ശ്രമിക്കും ആ ആ അഡ്വാന്സ് വേണ്ടാ ഫുള് പേയ്മെൻറ്റാണേ നമ്മൾ ക്രെഡിറ്റില്ല ക്രെഡിറ്റില്ല നമുക്ക് ഇത് പൈസാ ബാങ്കി വന്നാൽ പിറ്റേ ദിവസം മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ സൈറ്റിൽ സാധനം എത്തിക്കും അപ്പം നല്ല ക്വാളിറ്റി സാധനമാണ് പിന്നെ നമ്മുടെ ഇവിടെന്ന് ഇവിടെന്ന് ടൌണിലെ എല്ലാ ആള്ക്കാരും മിക്കവാറും ഒക്കെ എടുക്കുന്നത് ആ ആ അപ്പം എന്നാക്കെ വേണമെന്നൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ഹാ ഹാ പിന്നെ ഞങ്ങളുടെ ആ അത് നമ്മൾ വളരെ റീസണബിളായിട്ടാണ് ഹോള് സെയില് റേറ്റിൽ ആലപ്പുഴ ജില്ല ആലപ്പുഴ ടൌണിലേറ്റവും വില കുറച്ച് നമ്മളാ കൊടുക്കുന്നത് വേറെ അത് അന്വേഷിച്ചാലും ആ വേറെ അന്വേഷിച്ചാൽ മതിയവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ അതെ അതെ അങ്ങനെ പറയത്തുള്ളെല്ലാരും എന്തോ ആ ഞാൻ ആ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റേയ്ല്സ് ഇട്ടേക്കാവേ അപ്പം നെറ്റ് ബാങ്കിങ്ങോ ഒന്ന് ചെയ്തിട്ട് ഒന്ന് അതിന്റെ ആ റെഫറന്സ് നമ്പറൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അപ്പം നമ്മുടെ ഇവിടെ കടയിലെ ഓഫീസീന്ന് നോക്കിയവർ വിളിച്ചോളും എന്തെങ്കിലുമൊക്കെ സാധനം അപ്പം ലിസ്റ്റ് എന്നിട്ട് ആ ഇവിടെന്ന് ആദ്യമായിട്ടല്ലേ എടുക്കുന്നത് അപ്പാ എവിടെയാണ് കൊണ്ടു തരേണ്ടതെന്നും കൂടൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ആ ആ അപ്പോൾ ലിസ്റ്റിട്ടേക്ക് ലിസ്റ്റിട്ട് കഴിയുമ്പം ഞാൻ അതിന്റെ ടോട്ടല് കോസ്റ്റ് പറഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പോൾ വന്ന് അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ശരി ഓ ശരി